ആ നമ്മൾ ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഒത്തിരി പിഴവുകൾ പറ്റാറുണ്ട് പുതിയ പാറ്റേണുകൾ പെട്ടെന്നു മനസ്സിലാകാത്ത പാറ്റേണുകൾ സ്റ്റിച്ച് ചെയ്യുന്ന വശങ്ങൾ മാറിപ്പോകുകയാണ് എനിക്ക് ഏറ്റവും പറ്റുന്ന ഇത് പിന്നെ ഏതെങ്കിലും ഒരു സ്റ്റെപ്പ് വിട്ടു പോയാൽ

യാ ലൈറ്റ് കളറിലുള്ള ക്ലോത്താണെങ്കിലും അതു നല്ല സൂക്ഷിച്ചു തന്നെ കൈകാര്യം ചെയ്യുക പെട്ടെന്ന് കറ പിടിക്കാനും ചെളി പിടിക്കാനുമൊക്കെയുള്ള സാദ്ധ്യത കൂടുതലായതുകൊണ്ട് അപ്പോൾ അതൊക്കെയാണ് അതൊക്കെ ഞങ്ങൾ പിന്നെ സൂക്ഷിക്കാറുണ്ട് പിന്നെ ഇനി അടുത്ത തെറ്റുകൾ വരുമ്പോഴാണ് ഇനി ഓരോന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നത്